ഡ്രൈവർ ദയവ് ചെയ്ത് മാസ്ക് ധരിക്കുക നിങ്ങളോട് ഞാൻ എത്ര വട്ടമായി പറയുന്നു മാസ്ക് ധരിക്കാൻ കോവിഡ് പടരുന്ന സാഹചര്യത്തിലും മാസ്ക് ധരിക്കാത്തത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മാത്രമല്ല അസുഖം വരുന്നത് മറ്റുള്ളവർക്കും അസുഖം വരും നിങ്ങൾ ഈ വണ്ടിയും കൊണ്ട് എങ്ങോട്ടൊക്കേ പോകുന്ന ആളാണ് അവിടെ നിന്നൊക്കെ രോഗാണുക്കൾ നിങ്ങളിലേക്ക് പ്രവേശിക്കുകയും നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വണ്ടിയിൽ കയറുന്ന മറ്റുള്ളവർക്ക് പ്രവേശിക്കുകയും ചെയ്യും അതുകൊണ്ട് ദയവ് ചെയ്ത് സാമൂഹ്യ ബോധവാനാകുക മാസ്ക് ധരിക്കുക കോവിഡ് പടരുന്ന ഈ സാഹചര്യത്തിൽ മാസ്ക് ധരിക്കാതിരിക്കുന്നത് വളരെയധികം വിഡ്ഡിത്തരമാണ് മാസ്ക് ധരിക്കുക മറ്റുള്ളവരേയും കൂടി സംരക്ഷിക്കുക നിങ്ങൾ ഇങ്ങനെ വൃത്തിയില്ലാതെ പെരുമാറുമ്പോൾ ബാക്കിയുളളവരെയും അത് ബാധിക്കും നിങ്ങളുടെ ഏജൻസിയിലേക്ക് ഞാൻ പരാതിപ്പെടും ദയവ് ചെയ്ത് മാസ്ക് ധരിക്കുക ഇല്ലെങ്കിൽ നിങ്ങളെ ഭാവിയെയും അത് ബാധിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരേയും അത് ബാധിക്കും